ഞാന് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ദിവസം ഞാനാണെങ്കിൽ അവിടെ ഒരു വലിയൊരു മലയില് പോയായിരുന്നു അപ്പം മലയുടെ പേര് കൃത്യായിട്ടറിയില്ല എന്നാലുവൊരു വലിയൊരു മലയായിരുന്നു അവിടെ ഞാൻ ഹൈക്കിങ്ങിന് പോയപ്പോഴത്തേക്കും അവിടെയിങ്ങനെ മൃഗങ്ങളൊക്കെ ഉള്ളൊരു സ്തലമാണ് അപ്പം ഞാനാണെങ്കിൽ ഒരു മാനിനെ കണ്ടു അവിടെയൊരു മാനുണ്ടായിരുന്നു ഞാനിങ്ങനെ കയറി പോവേണ്ടാ ഇടയ്ക്ക് വെച് മാനിനെ കണ്ടു ഒരച്ഛന് മാനും ഒരമ്മമാനും പിന്നൊരു കുട്ടിമാനുമായിരുന്നു അതിലുണ്ടായിരുന്നത് അത്പോലെ തന്നെ നമ്മൾ പോയതൊരു നാല് മണി ആ ഒരു സമയത്താണ് അപ്പം നമ്മൾ പോയപ്പോഴത്തേക്ക് സൂര്യ അസ്തമിക്കാന് സമയമായി ഞമ്മളെറങ്ങിയപ്പോൾ ഒരു ഇങ്ങനെ കയറി കയറി ഏറ്റോം മോളിക്കയറീട്ട് അവിടൊരു പാറയിലിരുന്ന് നമ്മള് ഇങ്ങനെ സൂര്യാസ്തമയം കണ്ടു അത് നല്ലൊരു ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ച്ചയായിരുന്നു എന്ന്വെച്ചാ മലകള്ക്കിടയിലേക്കിത്പോലിങ്ങനെ താന്നിറങ്ങി പോണ പരിപാടി അപ്പം ഇരിക്കാന് നല്ല ഭംഗിയുള്ള ഒരിതായിരുന്നു പിന്നാം പറയാന്നുള്ളെവെച്ചെ ആ സമയത്തുണ്ടായിരുന്ന ആ ആ മലകൾ മലകളിലാണ് ആ ഒരു പ്രത്യേക തരത്തിലുള്ള ആ ഒരു ശബ്ദവും അത്പോലെ തന്നെ ആ ഒരു തണുത്ത കാറ്റും അതക്കെ നല്ല ഭംങ്ങിയുള്ളതായിരുന്നു എനിക്കത് മറക്കാന് പറ്റാത്തൊരനുഭവമായിരുന്നു